ഞങ്ങളുടെ പ്രദേശത്ത് ആശുപത്രികളിൽ നല്ല തിരക്കും നീണ്ട കാത്തിരിപ്പും സമയവും എല്ലാം ഉണ്ടാകാറുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ രോഗങ്ങളുടെയും ആക്സിഡൻറ്റ് കേസുകളുടെയും എണ്ണം വളരെ കൂടുതലാണ് ഈ കാലത്ത് നമുക്ക് അറിയാം നിരവധി രോഗങ്ങളാണ് പുതിയ പുതിയ രോഗങ്ങളാണ് വന്നു കൊണ്ടിരിക്കുന്നത് നിപ്പ കോവിഡ് പോലെയുള്ള പുതിയ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിൽ ഒക്കെ ഭയങ്കര തിക്കും തിരക്കും കൂടിയാണ് മരുന്നുകൾക്ക് ക്ഷാമം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ആശുപത്രിയിൽ നേരിട്ടു കൊണ്ടിരിക്കുന്നത് കൂടാതെ ആക്സിഡൻറ്റ് കേസുകൾ ഇഷ്ടം പോലെയാണ് നമ്മുടെ അമിത വേഗത കാരണവും ശ്രദ്ധക്കുറവും കൊണ്ടുമാണ് ഒരുപാട് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിൽ അതിനും ഒരുപാട് തലം നമുക്ക് ആവശ്യമാണ് മരുന്നുകളും എല്ലാം നമുക്ക് അത്യാവശ്യമാണ് എൻ ഞങ്ങളുടെ അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ വളരെ കുറവാണ് അത് കൊണ്ടുതന്നെ അവിടെ ഭയങ്കര തിരക്കും ബ്ലോക്കും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഒക്കെ മരുന്നിൻ്റെ പ്രശ്നം വരുന്നത് ഒരു ആളുകളുടെ എണ്ണം കൂടുതലും എല്ലാം കൊണ്ടാണ് പിന്നെ ഹോസ്പിറ്റലുകളിൽ അമിതമായ ബെഡ്ഡുകളും കട്ടിലുകളും ഇല്ലാത്തതാണ് അടുത്ത ഒരു നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ വരുന്നതും തിരക്ക് കൂടിയാലും സ്ഥലങ്ങൾ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് നമുക്ക് അറിയാം ഇപ്പോൾ കോവിഡ് അതുപോലെ നിപ്പ എന്നുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഒന്നും സ്ഥലം ഇല്ലാതെയായി ക്വാറന്റൈൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യേണ്ടി വന്നു അങ്ങനെ മരുന്നുകൾ കണ്ടു പിടിക്കാനും മരുന്നുകൾ എത്താൻ വൈകുന്നത് ഒക്കെ ഇതിന് ഒരു വലിയ പ്രശ്നമായി കണക്കാക്കേണ്ടി ഇരിക്കുന്നു പിന്നെ ഹോസ്പിറ്റലുകളിൽ ഒക്കെ നല്ല ശുചിത്വം ഉണ്ടാകണം എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ നമ്മൾ രോഗത്തെ പ്രതിരോധിക്കാനും രോഗം പെട്ടെന്ന് മാറാനും ഏറ്റവും കൂടുതൽ ആവിശ്യമുള്ളത് ശുചിത്വം തന്നെയാണ് ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഒക്കെ വൃത്തിഹീനമായ പല സാഹചര്യങ്ങളും നമ്മൾ കണ്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഒന്നും വൃത്തികൾ വൃത്തിഹീന പരിപാലനം കുറവായിരിക്കും ആ അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ രോഗ സാധ്യത കൂട്ടാൻ ഉള്ളതും അപ്പം അത്തരം വെല്ലുവിളികളാണ് നമ്മുടെ ആശുപത്രി അംഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിന് അനുസരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം പിന്നെ മരുന്നുകളുടെ ഉയർന്ന വർദ്ധനവ് വില അതൊക്കെയാണ് പിന്നീട് നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുവിധം ആളുകൾക്ക് ഒക്കെ എല്ലാം മരുന്ന് അത്രയും പൈസ കൊടുത്ത് മരുന്ന് വേടിക്കാൻ പ്രാപ്തരല്ലാത്തവരും ഉണ്ട് ഈ ലോകത്ത് നമ്മുടെ പ്രദേശത്ത് ആയാലും അപ്പോൾ അതൊക്കെ പരിഗണിച്ച് വേണം നമ്മൾ മരുന്നും സാധങ്ങളൊക്കെ എത്തിച്ച എത്തിക്കാനെല്ലാം